ഇരുപത്തി ഒൻപത് പൂജ്യം ഒൻപത് ആയിരത്തിതൊള്ളയിരത്തിതൊണ്ണൂറ്റി ഒമ്പത് പന്ത്രണ്ട് പൂജ്യം ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപതി രണ്ട് പൂജ്യം രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനാല് പൂജ്യം അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പതിനാറ് പൂജ്യം നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ട് പൂജ്യം ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല്